ഇവിടത്തെ ആൾക്കാരക്കെ പോവാറുള്ള സ്ഥലങ്ങൾ ഇ പറഞ്ഞത് പോലെ കോഴിക്കോട് എറണാകുളം കണ്ണൂർ പിന്നെ മൂന്നാർ വയനാട് ഊട്ടി തിരുവനന്തപുരം ഇതൊക്കെയാണ് മിക്കവാറും ഇവിടത്തെ ആൾക്കാരക്കെ പോവാറ് അല്ലങ്കിപ്പിന്നെ കേരളത്തിൻ്റെ പുറത്ത് പോകുന്നതായിരിക്കും മാങ്ക്ളൂര് മുമ്പൈ ഗോവ അങ്ങനെയൊക്കെ ആയിരിക്കും പോവുണ്ടാവാ അതെന്തോണ്ടാന്ന് വെച്ചഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞപോലെ കോഴിക്കോടേക്കക്കെയാണ് പോണേങ്കിൽ മെയിൻ കാരണവും അവർക്ക് ഈ ബീച്ചിൽ പോവാ അവിടത്തെ ഫുഡ്ഡ് കഴിക്കാം അങ്ങനത്തക്കൊരു ഉദ്ദേശത്തോടെയായിരിക്കും പിന്നെ പറയണങ്കിൽ ഇപ്പം ആലപ്പുഴക്കൊക്കെ പോവാണെങ്കിൽ അവിടെ അതവിടെ ഒരുപാട് അത് ഒരുപാട് വെള്ളമുള്ള സ്ഥലമാണ് എന്നുവെച്ചുഴിഞ്ഞ ഒരുപാട് കായലൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പം അവിടെ ഹൗസ് ബോട്ടിങ്ങിനായാലും പോവാം വീട്ടുകാരുടെ കൂടെ പോവാനാണേലും കൂട്ടുകാരുടെ പോവാ കൂടെ പോവാനാണെങ്കിലും നല്ല രസമുള്ളൊരു സ്ഥലമാണ് ആലപ്പുഴ പിന്നെ പറയാനുള്ളത് എറണാകുളം എറണാകുളത്ത് കൂട്ടുകാരുടെ കൂടെ പോവാൻ നല്ല രസമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറെ മോൾസ്സ്ണ്ട് അവിടെ കഴിയ്ക്കാൻ നമുക്ക് പുതിയ പുതിയ ഫുഡ്ഡ്കൾ കുറെ ഉണ്ടാവും അപ്പം നമുക്ക് ഓരൊന്നും ഓരൊന്നും നമുക്ക് കഴിച്ച് നോക്കാമ്പറ്റും അതൊക്കെ പുതിയ പുതിയ എക്സ്പീരിയൻസ്സാരിക്കും പിന്നെ പറയാനുള്ളത് ഊട്ടി ഊട്ടീ മൂന്നാറും വയനാടക്കെ നമുക്ക് പോയി അങ്ങനെ കണ്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ കാപ്പിത്തോട്ടവും ചായത്തോട്ടവും അങ്ങനെയൊക്കെ ഉള്ളകൊണ്ട് കാണാൻ നല്ല രസമാണ് അവിടെപ്പോയിട്ട് നമുക്ക് ശരിക്കും ആസ്വദിക്കാമ്പറ്റും അവിടെ നല്ല തണുപ്പായിരിക്കും അത്യാവശ്യം ഇവിടെ ചൂടുണ്ടെങ്കിലും അവിടെ ചൂടാണെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ പാലക്കാട് തൃശ്ശൂര് ജില്ലേലക്കെ താമസിക്കുന്നവർക്ക് അതൊരത്യാവശ്യം തണുപ്പുള്ളേര്യായിട്ട് തന്നേ തോന്നുള്ളു അവിടെയായാലും അപ്പം കുറെ മലയുണ്ട് ഇപ്പം വയനാട്ടിലാണെങ്കിൽ അധികവാരോ അധികം ആർക്കും അറിയാത്തൊരു മലയാണ് കുരിശ്ശിമലാന്ന് പറയുമ്പോൾ ഞാനതെൻ്റെ ഒരു കൂട്ടുകാരീടെ കൂടെപ്പോപ്പോൾ അവൾ കാണിച്ച് തന്നെയാണ് ആ മലെക്കെ നല്ല രസമുള്ളയായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതേപോലെ ഈ തോട്ടങ്ങൾ കാണാൻ കുറെ സ്ഥലങ്ങളുണ്ട് ഈ ഊട്ടി വയനാട് മൂന്നാറ് അതോണ്ടൊക്കെയാണ് എൻ്റെ ഈ അടുത്തുള്ള ആൾക്കാർ എങ്ങടേലും പോവാൻ തീരുമാനിക്കുമ്പോൾ ഈ ഊട്ടീ വയനാട് എറണാകുളം കോഴിക്കോട് അങ്ങനക്കെ തീരുമാനിക്കുന്നത്